വരൂ ഇരിക്കൂ ആ പറയൂ ഏജ് അൻപത് വയസിൽ കൂടാൻ പാടില്ല ഇരുപത്തിയഞ്ച് വയസ് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് വയസ് വരെ ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട് വേണ്ട വേണ്ട സാലറി സ്ലിപ് വേണ്ട പക്ഷെ രണ്ട് ഗ്യാരണ്ടർമാര് വേണം എടുക്കുന്ന ആളെ കൂടാണ്ട് രണ്ട് ഗ്യാരണ്ടർമാര് വേണം ഒരാള് കുടുംബ ഒരാള് കുടുംബത്തിൽ നിന്ന് ആവാം ഒരാള് പുറത്തുനിന്ന് വേണമെന്ന് നിർബന്ധമാണ് അതും അൻപത് വയസാണ് പറയാ അൻപത് വയസ് ഉള്ളവർക്ക് കൊടുക്കും അതെ അത് ഇപ്പൊൾ കൊടുക്കുന്നത് അമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത്

ബാങ്ക് പാസ്സ്ബുക്കിൻ്റെ കോപ്പി വേണം ആധാർ കാർഡ് വേണം ഐഡി കാർഡ് റേഷൻ കാർഡ് എടുക്കുന്ന ആളുടെ രണ്ട് ഗ്യാരണ്ടിയർമാരുടെ ആധാർ കാർഡ് ഐഡി കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്സ്ബുക്ക് ആറ് മാസത്തെ ക്യാൻസലേഷൻ വേണം അങ്ങനെ ഒന്നും ഇല്ല ആറ് മാസം ക്യാൻസലേഷൻ കാണിക്കണം

വന്ന് പോയി കൊണ്ട് ഇരിക്കണം അത് ഇവിടെ ഫോം ഉണ്ട് ആ ഫോം തരാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഫോമിൻ്റെ വില അത് തന്ന് കഴിഞ്ഞാൽ മൂന്ന് പേരും ഇതില് ഒപ്പിടണ്ടത് എവിടെ എവിടെ ഒക്കെയാണ് ഒപ്പിടേണ്ട സ്ഥലങ്ങളുണ്ട് ഇതിലൊക്കെ ഫിൽ ചെയ്ത് ഒപ്പിട്ടിട്ട് മൂന്ന് പേരുടെയും ആധാർ കാർഡും ഐഡി കാർഡും ബാങ്ക് പാസ്സ് ബുക്ക് റേഷൻ കാർഡും കൂടി വെച്ചിട്ട് ഇവിടെ തന്ന് കഴിഞ്ഞാൽ പാസ്സ് ആയി കഴിഞ്ഞ് ഞങ്ങൾ ബോർഡ് മീറ്റിങ് ഉണ്ട് അത് കഴിഞ്ഞ് പാസ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും ഇവിടുന്ന് വിളിക്കും അപ്പോൾ നിങ്ങൾ വന്നാൽ മതി മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് വർഷം അതായത് ഇരുപത്തി നാല് മാസം പതിനെട്ട് ശതമാനം പലിശ ആ അത് കറക്റ്റ് നിങ്ങൾ എന്നാണ് പത്താം തിയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് പൈസ തരുന്നത് എന്ന് പറഞ്ഞാൽ ഒൻപതാം തിയതി ഒൻപതാം തിയതി നിങ്ങൾ ഇവിടെ പൈസ അടച്ചിരിക്കണം അല്ലെങ്കിൽ ചെറിയ ഒരു ഇൻ്ററെസ്റ്റ് അതില് കയറും പത്താം തിയതി ചെറിയ ഒരു ഇൻ്ററെസ്റ്റ് കയറും ഒരാഴ്ച്ച മാക്സിമം ഒരാഴ്ച്ച അതെ വിളിച്ച് പറയും ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ ഫോമിൻ്റെ വില ഓ ശരി പറയാം ശരി